ചെടികളും പുഷ്പ്പങ്ങളുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ലൊരു സുഗന്ധം നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ പൂക്കളുടെ കളറുകൾ കാണുമ്പോഴോ നല്ല ചുവപ്പ് മഞ്ഞ വയലറ്റ് ഇതൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു കുളിർമ്മയാണ് തരുന്നത് പിന്നെ നമുക്കെന്തൊരു വിഷമം ഉണ്ടെങ്കിലും അത് നമ്മുടെ മനസ്സിൽ നിന്നും മാറുകയാണ് ആ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അതിനെ നട്ട് വളർത്തി അതിന് വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ കൊടുത്ത് ആ ചെടികളിൽ നിന്ന് നല്ല ഉഷാറായൊന്ന് വന്ന് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു വിഷമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നു ഒരു പൂവ് രാവിലെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ പിന്നെ അതിനെ തലോടുമ്പോൾ ഓരോ പൂക്കൾക്കും ഒരോ ചെടികൾക്കും അതിൻ്റെ പേരുകളൊക്കെ ഇട്ട് അതോനോട് ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിന് ഒരു റിലാക്സാക്ഷൻ ആവുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താണെന്ന് വച്ചാൽ അതിനെ തലോടുമ്പോൾ നമ്മുടെ മക്കളെ തലോടുന്ന പോലെ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് തോന്നും പിന്നെ ഓരോ പൂക്കളുടെ കളറുകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് നല്ലൊരു ഇമ്പമാകുന്നു പിന്നെ ചെടികളിൽ പിന്നെ പൂക്കളും പൂക്കളിൽ പക്ഷികളും പൂമ്പാറ്റകളുമൊക്കെ വന്നിരിക്കുമ്പോൾ അത് വേറെ ഒരു ഭംഗി പിന്നെ അതിനെ ഓർഡറ അനുസരിച്ച് വയ്ക്കുക അതിനെ പുതിയ പുതിയ ചുവടുകൾ പിടിപ്പിക്കുക പുഴു വന്നിരിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്നു അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്തൊരു കുളിർമ്മയും സന്തോഷവും ആനന്ദവും ഒക്കെ കിട്ടുന്നു പിന്നെ അത് ചെയ്യുന്നത് ഒരു ചെടി ഉണ്ടാക്കി അതിൽ നന്നായി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിൽ ചെറിയ ഒരു കൊമ്പെടുത്ത് വേറെ ഒരു ചുവട് പിടിപ്പിച്ച് ആ ഒരു തയ്യാറാക്കി ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പം നമ്മൾക്ക് അത് കൊടുക്കാം കൊടുക്കുമ്പോൾ നല്ല സന്തോഷം കിട്ടുന്നു പിന്നെ